ഇന്ന് ഇപ്പോൾ ഈ കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ നമ്മൾ അനുഭവിക്കുന്നത് അനുഭവിക്കുന്നത് മാത്രമല്ല കൂടുതൽ രോഗങ്ങൾ വരുന്നതും എന്ത് കാരണമാണ് ഇന്ന് കുട്ടികൾ പുറത്തിറങ്ങി കളിക്കുന്നില്ല കാരണം എന്താന്നുവച്ചാൽ അവർ ഇന്ന് ടീവി മോബൈൽ ഫോൺ അങ്ങനെ ഗെയിംസ് ഓൺലൈൻ ഗെയിംസ് അങ്ങനെ പല പല ഗെയിംസിലും അവർ അഡിക്ടയിട്ടിരിക്കുകയാണ് മാത്രമല്ല ഇന്ന് ചെറിയ ചെറിയ കുട്ടികൾ പോലും അതായത് ജനിച്ച കുട്ടികൾ പോലും ഇന്ന് ഫോൺ യൂസ് ചെയ്യാൻ അവർക്കു പഠിപ്പിച്ചു കൊടുക്കേണ്ട യാതൊരു ആവശ്യവുമില്ല കാരണം അവർക്ക് അറിയാം അത് എങ്ങനെയാണ് യൂസ് ചെയ്യണ്ടത് അതിലെന്തൊക്കെയുണ്ട് എങ്ങനെയാണു എന്നൊക്കെ അറിയാം ഇത് നമ്മൾ ഈ വലിയ വരെ കണ്ടിട്ടാണ് അവർ അത് പഠിക്കുന്നതെങ്കിൽ കൂടി അവർ അതിനെ അവർ അതിനെ വാച് ചെയ്ത് അവർ അവരെ നിരീക്ഷിച്ചു എങ്ങനെയാണ് കാര്യങ്ങൾ എന്ന് കണ്ടു പിടിക്കുകയാണ് അതുകൊണ്ടുതന്നെ ഇന്നു കുട്ടികൾ എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ അവർ പുറത്തുപോയി കളിക്കുന്നില്ല കാരണം എന്താ ടീവി മൊബൈൽ ഫോൺ തന്നെയാണ് അതു പോലെ തന്നെ ഇന്നു കൂടുതൽ കുട്ടികൾ രോഗങ്ങൾ കാണാം കണ്ണിന് പല പല രോഗങ്ങൾ ഉണ്ട് ഇപ്പോൾ തന്നെ ഫോൺ പൊട്ടിത്തെറിച്ചു പല കുട്ടികൾ പല അപകടങ്ങൾ ഉണ്ടാകുന്നു എന്നാൽ കുട്ടികൾ തയ്യാറാകുന്നില്ല ഒര് ചിലപ്പോൾ അത് മാതാപിതാക്കളുടെ തെറ്റായിരിക്കാം എന്നാലും അവരതിന് ശ്രമിക്കുന്നില്ല അവർ നമുക്ക് കുട്ടികൾ നമ്മൾ പുറത്തു പോയി കളിക്കണം എന്നാലേ അവർക്ക് ഇമ്മ്യൂണിറ്റി അതുപോലെതന്നെ അവർക്ക് കായികപരമായും ആരോഗ്യപരമായും അവർക്ക് നമ്മ എനർജി വേണം എന്നാലേ ഫുഡ് കഴിക്കുന്നത് നേരെ ദഹിക്കാനും ഒക്കത്തിനും നമ്മൾ പുറത്ത് പോയി കളിച്ചാൽ ആണ് അവരെ നമ്മൾ മോട്ടിവേറ്റ് ചെയ്യണം അതിന് എന്നാലേ നമുക്ക് അവർക്ക് നല്ലതുപോലെ അതിന്നു കുറച്ച് അറിവ് ഉണ്ടാകുകയുള്ളൂ അതുപോലെതന്നെ അവർക്ക് ഫിസിക്കലി അവർക്ക് ഒരു ഫിറ്റ്നസ് വേണം എന്നുണ്ടെങ്കിൽ അവരെ നമ്മൾ പുറത്തുപോയി കളിക്കണം ഫുട്ബോൾ ക്രിക്കറ്റ് അങ്ങനെ പല പല കളികൾ ഉണ്ട് എന്നാൽ ഇന്ന് കുട്ടികൾ ആരും അതിന്നു തയ്യാറാകുന്നില്ല എന്ത് കാരണം എന്നുവെച്ചാൽ ടീവി ഫോൺ ഇതൊക്കെത്തന്നെയാണ് നമ്മൾ കൂടുതൽ ആയിട്ട് അവരെ പറയണം കാണിക്കണം നമ്മൾ എങ്ങനെയാണ് ഒരു കളി പറഞ്ഞു നമ്മളും അവരോടൊപ്പം ഇറങ്ങി കളിക്കണം സംസാരിക്കണം എന്നാലാണ് അവർക്കും അതിനു ഒരിതുണ്ടാകുകയുള്ളു എന്റെ വീട്ടിൽ തന്നെ രണ്ടു കുട്ടികൾ ഉണ്ട് എന്റെ ചേച്ചിയുടെ അവര് അവരുന്നു പറഞ്ഞാല് ഏറ്റവും കൂടുതൽ എന്ന് എത്ര നന്നായി ഒരു വിധം ഫോൺ യൂസ് ചെയ്യാനും ലാപ്ടോപ്പ് യൂസ് ചെയ്യാനും പറ്റും അവർ ടെക്നോളജി ഭയങ്കര ഡെവലൊപ്മെന്റ്റ് ഉള്ളവരാണ് എങ്കിൽ കൂടി പക്ഷെ അവർ ഈ ഒരു ടെക്നോളോജിക്കലി അവരു നന്നായി നിരീക്ഷിച്ചു എല്ലാം പെട്ടെന്ന് ക്യാച്ച് ചെയ്ത് എടുക്കുന്നുണ്ട് എന്നാൽ കുടി അത് ആരോഗ്യത്തിനും ഫിസിക്കൽ അത് നല്ലത് അല്ല അത്കൊണ്ട് നമ്മൾ അവരെ നമ്മൾ മാതാപിതാക്കൾ അല്ലെങ്കിൽ വീട്ടിലുള്ളവർ നമ്മൾ അവരോടൊപ്പം ഇരുന്നു അവരോടൊപ്പം കളിച്ചു അവരെ കാര്യങ്ങൾ മനസിലാക്കണം